ഞങ്ങളുടെ ജില്ലയിൽ കുറേ ആരാധനാലയങ്ങൾ ഉണ്ട് കുറേ അമ്പലങ്ങൾ ഉണ്ട് ഫെയ്മസ് ആയിട്ടുള്ള കുറെ അമ്പലങ്ങൾ ഉണ്ട് നമ്മുടെ ധോണി അമ്പലമുണ്ട് വടക്കന്തറ അമ്പലം നെന്മാറ അവിടെയുണ്ട് പിന്നെയെന്താ മണപ്പുള്ളിക്കാവ് അങ്ങനെ പറയത്തക്ക ഒരുപാട് അമ്പലങ്ങൾ ഉണ്ട് നമ്മുടെ പറശ്ശിനിക്കടവ് അങ്ങനെ കുറേ പല്ലശ്ശന പല്ലശ്ശന ഇതൊക്കെ നമ്മുടെ പാലക്കാടാണ് ഇപ്പോൽ കുറെ അതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കുറെ അവർ ഉത്സവങ്ങളൊക്കെ നടത്തി ഒക്കെ നമ്മുടെ ജില്ലയിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് മണപ്പുള്ളിക്കാവ് വേലയ്ക്കൊക്കെ കാണണം നല്ല ഒരുപാട് ജനങ്ങളാണ് അത് കാണാൻ വരുന്നത് കാരണം ഒരുപാട് ആനകൾ നിരന്ന് നിൽക്കും അതുപോലെതന്നെ ഒരുപാട് ആൾക്കാർ ജാതിയോ മതമോ ഒന്നും നോക്കാണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ വരും വർഷത്തിൽ ഒരു തവണ നമ്മൾ ആ എല്ലാവരും കൂടെ ഒന്ന് ഒത്തു കൂടുന്നതാണ് ഈ ഉത്സവമൊക്കെയെന്ന് പറയുന്നത് അപ്പോൾ ഈ എന്താ കൊങ്ങംപട നമ്മുടെ കൊടുമ്പ് ചിറ്റൂര് ഭാഗത്ത് നടത്തുന്ന കോങ്ങാമ്പടയൊക്കെ അതൊക്കെ ഒരു ഏഴുദിവസത്തെ പരിപാടിയാണ് ഏഴ് ദിവസം എന്താ പറയുക നാട്ടുകാരൊക്കെ കൂടി അമ്പലത്തിൽ ഉത്സവവും ആഘോഷവും അവിടുത്തെ ചടങ്ങുകളും ഒക്കെ ഭംഗി നല്ല ഭംഗിയാണ് അവിടെ കാണാൻ ഒരുപാട് പേര് വരും ഇവിടെ അതുപോലെ തന്നെ കുടുംബത്തേര് തേരു വലിക്കും നമ്മൾ പഴനിയിൽ തേര് വലിക്കണ പോലെ കുടുംബ മിനി പഴനി എന്നൊക്കെയാണ് അത് അറിയപ്പെടണത് അപ്പോൾ അവിടെ പോയിട്ട് തേര് വലിക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആൾക്കാരൊക്കെ കൂടുക നല്ല രസമാണ് തേര് വലിക്കുമ്പോൾ അതിൽ ഭഗവാനെ ഇരുത്തി നമ്മൾ അങ്ങോട് തേരിനെ ഇങ്ങനെ ഒരുപാട് ആൾക്കാര് ചേർന്ന് കയർ വലിക്കും അതുപോലെ കൽപ്പാത്തി കൽപ്പാത്തി തേര് കാണാനാണ് കല്പാത്തി തേര് കാണാൻ പുറമെ നിന്ന് വരെ ആൾക്കാർ ഇവിടെ എത്താറുണ്ട് ആരൊക്കെയാണ് വരികയെന്ന് അറിയോ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അതുപോലെ ഇവിടെ ഒരു പത്ത് ദിവസത്തെ പരിപാടിയായിരിക്കും കൽപ്പാത്തിയിൽ അവിടത്തെ ആഗ്രഹാരത്തിൽ ഇവർ ഒരുപാട് മന്ത്രങ്ങളും പൂജകളും ഒക്കെ ചെയ്യാറുണ്ട് ഒരുപാട് പരിപാടികൾ ഉണ്ടാവാറുണ്ട് രാത്രിയിൽ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൂന്നിത്തെ മൂന്നു ദിവസമാണ് തേര് വലി ഉണ്ടാവുക ഒന്നാം തേര് രണ്ടാം തേര് മൂന്നാം തേര് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ തേരുവലി എന്നു പറയുമ്പോൾ ആൾക്കാര് ഒത്തുകൂടുക കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ടാവും ആനയൊക്കെ വന്നിട്ട് തേര് വലിക്കും കാണാൻ തന്നെ സൂപ്പർ ആണ് ആനയൊക്കെ വന്ന് തേര് വലിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒക്കെ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ പണ്ടത്തെക്കാലത്ത് തുടങ്ങിവച്ച് നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ കലകളാണ് അത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് മുന്നോട്ടുകൊണ്ടുപോയി കൊണ്ടേയിരിക്കുണ്ട് ആൾക്കാരൊക്കെ അതിന് സപ്പോട്ട് ചെയ്തിട്ടും ആൾക്കാരൊക്കെ ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അപ്പോഴത്തെ ആൾക്കാരാണെങ്കിലും ഇപ്പോഴത്തെ ആൾക്കാരാണെന്നുണ്ടെങ്ങിലും എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഒരുപോലെ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിലാണ് എന്ത് ചെയ്യുന്നത് മുന്നോട്ടു കൊണ്ടുപോക്കും അവരവരുടെ കൾച്ചർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്ക്